നമ്മുടെ സംസ്ക്കാരം എന്നു പറയുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഓരോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചില സംസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട് പഴയ കാലം നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള സംസ്കാരങ്ങൾ അപ്പോൾ ഓരോ കുറെ ആൾക്കാർക്ക് കൈത്തറി ഉണ്ട് അപ്പോൾ അത് അവരെ ഒരു സംസ്കാരവുമായിട്ട് മാറും പിന്നെ ചട്ടി മറ്റേ അങ്ങനത്തെ പരുപാടി കുറെ ആൾക്കാരുണ്ട് പിന്നെ കുറെ ആൾക്കാർ പഠിപ്പിക്കാൻ ഒരു തലമുറ അപ്പോൾ എങ്ങനെയാണോ അത് അങ്ങനെയേ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ തലമുറ ഇപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൾ പഠിപ്പിക്കുന്ന ആൾക്കാർ അവർ അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ പോവും പിന്നെ ഇപ്പം നമ്മൾ സ്വാമിജി അല്ലെങ്കിൽ പൂജിക്കുന്ന ആൾക്കാർ പൂജാരിമാർ അവരുടെ വേറെ സംസ്ക്കാരം പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു ഇതില്ല പഴയ ആൾക്കാർ തുടർന്ന് വന്ന ഒരു ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോണം എന്ന് ഈ മുഴുവനായിട്ട് നമുക്ക് അവരെ ഇതു പറയാൻ പറ്റില്ല ഇപ്പോഴെന്നെ ഓരോരുത്തർക്കും ഓരോ അവരവരുടെ ഇഷ്ടവും കാര്യങ്ങളും ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് വിട്ടു പോവുകയോ വിട്ട് പോവാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അതിൽ നിന്ന് മാറി അവർക്ക് പുതിയ ഒരു തൊഴിൽ കണ്ടെത്തണം പുതിയ ഒരു രീതി ഇപ്പോൾ അവർ എന്താണോ പഠിക്കുന്നത് അതിന് അനുസരിച്ച് അവർ വേറെ വേറെ തൊഴിലിലേക്ക് മാറിപോവാറുണ്ട് അപ്പോൾ അതിൽ കുറ്റം പറയാൻ അങ്ങനത്തെ ഇതിനൊന്നും പറ്റില്ല പക്ഷെ എന്തു വച്ചാലും നമ്മൾ ആ ഇപ്പോൾ അവർ വേറൊരു രീതിയിൽ നമുക്ക് അവരെ അത് എന്താ പറയുക വേറെ ഒരു രീതിയിൽ നമുക്ക് അവരോട് അത് പറഞ്ഞ് തിരിച്ച് കൊണ്ടുവരാനുള്ളൊരു സന്ദർഭം നമുക്ക് ലഭിക്കുന്നില്ല